നമ്മുടെ പ്രദേശത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് പോലീസ് അതിനെ എന്ന് പറഞ്ഞാൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ മിനിമം സ്പീഡിൽ ഏത് വാഹനം ആണെങ്കിലും പോകാൻ പാടുള്ളൂ പിന്നെ അപകട മേഖല എന്തെങ്കിലും കേറ്റം ഇറക്കം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബോർഡ് വെക്കും പിന്നെ എന്തെങ്കിലും ഇഴജന്തുക്കളോ മൃഗങ്ങളോ അങ്ങനെയുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് ആണെങ്കിൽ അതിനുള്ള ബോർഡുകൾ ഒക്കെ സ്ഥാപിക്കാറുണ്ട് പോലീസുകാർ അങ്ങനെയൊക്കെ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാലും അപകടങ്ങൾ ഒന്നും ഒഴിയുന്നില്ല സ്പീഡ് ഒരു മിനിമം സ്പീഡിൽ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ആരും കേൾക്കാറില്ല എല്ലാവരും ഇപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ ആണെങ്കിലും കാറിൽ ആണെങ്കിലും എത്ര സ്പീഡ് ഉണ്ടോ ആ ഒരു ഫുള്ള് സ്പീഡിലൊക്കെ പോയിട്ട് ഓരോ അപകടങ്ങൾ വിളിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾ ഉണ്ടാകും ഭാര്യയെ കൊന്നിട്ട് അടിച്ച് കൊന്നിട്ട് പിന്നെ പീഡിപ്പിച്ചിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്